ഇപ്പോൾ കേരളത്തില് പരമ്പരാഗത വിനോദ രീതികൾ എന്തോക്കെയാന്ന് വച്ച് കഴിഞ്ഞാൽ മെയ്നായിട്ട് നമുക്ക് തിയേറ്ററുകളൊക്കെയാണ് മെയ്നായിട്ട് വിനോദ രീതിയില് ഉൾപ്പെടുന്നത് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം സിനിമ കാണാത്തവരായിട്ട് ആരുമില്ല ഇപ്പം തന്നെ ലിയോന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങി ലോകേഷ് കനകരാജിൻ്റെ ഒരു പടമാണ് അപ്പം അതിന് എന്നെ നാല് മണിക്കും ക്കെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാൻസ് ഷോയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് വിജയ്ൻ്റെ ഒരു പടമാണ് ലിയോ എന്ന് പറഞ്ഞിട്ട് അപ്പം അതക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാല് മണിക്കൊക്കെ കാണാന് ആൾക്കാര് പോകുന്നൊണ്ടെന്നാണ് തെളിയിക്കുന്നത് അപ്പം സിനിമയാണ് മെയ്നായിട്ട് ഒരു വിനോദ പരിപാടീന്ന് വേണമെങ്കിൽ പറയാം പറ്റും ഇപ്പോൾ ടീവിലാണെങ്കിലും സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പം ആൾക്കാര് നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഇപ്പോൾ ഒടിടിലൊക്കെ റിലീസായത് കൊണ്ട് എല്ലാവര്ക്കും മൊബൈലിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും സിനിമ കാണാൻ വേണ്ടി പറ്റും പല രീതിലുള്ള തിയേറ്ററുണ്ട് ഇപ്പോൾ രാഗിണി തിയേറ്ററ് രാധാ തിയേറ്ററ് അങ്ങനെ പല രീതിയിലുള്ള തിയേറ്ററുകള് നമുക്ക് ഇവിടെ കേരളത്തില് ഇഷ്ട്ടംപോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം